വായനാശീലം ഇന്ന് കൊച്ചുകുട്ടികളിൽ അല്ലെങ്കിൽ പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് മറ്റ് ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് വായനയിലേക്ക് കൂടുതലായിട്ട് പണ്ട് ലൈബ്രറിയും ക്ക് വളരെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ പോയി പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വായനാശീലം ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഇന്ന് അത് ഇല്ല നമ്മൾ അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കേണ്ട ഏറ്റവും ഒരു അഭികാമ്യമായ ഘടകമാണ് വായന അതിന് നാം ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ഈ ചിത്രരചന തൊട്ട് ചിത്രരചന ഒരു ഒരു വരയാണ് എങ്കിൽ തന്നെ അതിൽ വായനയും കൂടെ ഉണ്ട് അങ്ങനെയുള്ള മാസിക കുഞ്ഞ് മാസികകൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ മുതിർന്ന് വരുമ്പോൾ അവർക്ക് വായിക്കത്തക്ക പരുവം ആവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിന്നെ വരിയെന്ന് പറയുമ്പോൾ നമ്മുടെ കത്തോലിക്കാ പ്രസിദ്ധീകരണങ്ങളാണ് കൂടുതൽ കൊടുത്ത് പഠിപ്പിക്കേണ്ടത് ബൈബിൾ വായിപ്പിക്കുക നമ്മുടെ നമസ്കാരങ്ങളും വേദപാഠ പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കുവാൻ നിരന്തരമായി നാം സമയങ്ങൾ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നല്ല ചിത്ര കഥകൾ അത് ബോബനും മോളിയും ഇങ്ങനെയൊക്കെയുള്ള രസകരമായി വായിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് രസകരവും രുചികരവുമായി തോന്നുന്ന പുസ്തകങ്ങൾ അശ്ലീല പുസ്തകങ്ങൾ പ്രത്യേകം നാം ഒഴിവാക്കണം അതൊന്നും വായിച്ചു ശീലിപ്പിക്കുവാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത് അപ്പോൾ അതിനൊക്കെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വായനാ ശീലം ഉള്ള തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ വാർത്തെടുക്കുവാൻ നമുക്ക് പറ്റും വായനാ ശകലം കുറഞ്ഞ് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് അതിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കണം വളരെ അധികം പ്രാധാന്യം കൊടുത്തു കൊണ്ടുവേണം മുന്നേറുവാൻ അതിനായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കണം കുഞ്ഞുങ്ങൾക്ക് ആ ശീലം കൊടുക്കണം എന്ന് നാം മനസിലാക്കുകയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി പറ്റിയ പുസ്തകങ്ങളും കുഞ്ഞ് നമ്മുടെ പള്ളിയിലെ പുസ്തകങ്ങളും വേദപാഠ പുസ്തകങ്ങളും ബൈബിളും ഒക്കെ കൂടുതൽ കൊടുത്തു വായിപ്പിച്ച് വളരെ വായനാശീലം വളർത്തിയെടുക്കണം എന്നുകൂടി വീക്ഷിക്കുക